എൻ്റെ പ്രിയപ്പെട്ട ചില ബൈക്കുകളെ പറ്റി പറയാണെങ്കിൽ ആ ഒരു ഇതിൽ ആദ്യം വരിക മിക്കവാറും റെഡ്ഡെക്സ് ടെൻ ആർ എൻ എന്നു പറഞ്ഞാൽ കാവാസാക്കിയുടെ ബൈക്കായിരിക്കും പിന്നീട് ഇഷ്ടമുള്ള ബൈക്കുകൾ നോക്കുമ്പോൾ ഹോണ്ടയുടെ സീ ബീ ആർ തൗസൻ്റ് ആർ തിവിൽ സിക്സ് ഫിഫ്റ്റി ആർ പിന്നെ ട്രയൽ ട്രൈഡൻറ്റ് ഇതക്കെ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ബൈക്കുകളിലൊന്നാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ബൈക്ക് ഉപയോഗിക്കുന്നില്ല പിന്നെ എൻ്റെ സ്വന്തം ബൈക്ക് ഏതാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ പറയുക ഒരു ഹുണ്ടാ ഗോൾഡ്വിൻ അല്ലെങ്കിൽ സി ബി ആർ തൗസൻ്റ് ആർ ആയിരിക്കും ഈ രണ്ടു ബൈക്കുകളിലും നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ യാത്രചെയ്യാനും വളരെ സുഖപ്രദമായ യാത്രയും അതുപോലെ തന്നെ വേഗത്തിലുള്ള യാത്രയിൽ നമുക്ക് വളരെ സുഖകരമാക്കും അപ്പോൾ ഇങ്ങനത്തെ കുറച്ചു കാര്യങ്ങൾ കാരണമാണ് ഈ ബൈക്കുകൾ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാകാൻ കാരണം ഇതിൻ്റെ വേഗതയാണെങ്കിലും ഇതിതെല്ലാം ഓടിക്കാനുള്ള സുഖമാണെങ്കിലും വേറൊരു നിലവാരത്തിലുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ബൈക്ക് യാത്രകളിൽ സൗകര്യപ്രദമായ ബൈക്കുകൾ ഏതൊക്കെയാണെന്നു ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയാം ദീർഘദൂര യാത്രകൾക്ക് എപ്പോഴും നല്ലത് ക്രൂസർ വിഭാഗത്തിൽ വരുന്ന ബൈക്കുകൾ അല്ലെങ്കിൽ ടൂറൽ വിഭാഗത്തിൽ വരുന്ന ബൈക്കുകളാണ് ഇതിൽ ചാ ഉദാഹരണങ്ങൾ പറയാണെങ്കിൽ മൾട്ടി സ്റ്റാറാ വീ ഫോർ അതൊരു ഡുക്കാട്ടിയുടെ ഒരു ബൈക്കാണ് അല്ലെങ്കിൽ ആ ബി എം ഡബ്ലൂൻ്റെ ജീ എസ് ട്വൽവ് ഫിഫ്റ്റി ഇതൊക്കെ വളരെയധികം ദീർഘ ദൂര യാത്രകൾക്ക് അനുയോജ്യമായ ബൈക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബൈക്കുകൾ കുറച്ച് ഉയർന്ന നിലവാ ഉയർന്ന നിലയിലാണ് ഇല് ഉള്ള നമ്മൾ ഇരിക്കുന്നൊരു ഇത് അത് അതിലൂടെ നമുക്കു വളരേ സുഖമായ രീതിയിൽ ഒറ്റിയേ മിഡിൽ ക്ലാസ് രീതിയിലാണ് നമ്മൾ ഈ ബൈക്കുകളിൽ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ദീർഘദൂര യാത്രകൾക്കുള്ള കുറേയധികം സൗകര്യങ്ങളും ഈ ബൈക്കുകൾക്ക് അതുണ്ട് ഡിജിറ്റൽ സൗകര്യങ്ങളും ബൈക്കുകൾക്കതുണ്ട് എഞ്ചിനാണെങ്കിലും വളരേ മികച്ച നിലവാരത്തിൽ നല്ല വേഗതയാണെങ്കിലും നല്ല സുഖപ്രദമായ യാത്രയാണെങ്കിലും ആ തരുന്നൊരു രീതിയിലുള്ള ബൈക്കുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബൈക്കുകളെ പറ്റിയുള്ള മൊത്തത്തിലുള്ളൊരു പൊതു അഭിപ്രായം